സംസ്ഥാനത്തെ സമ്പത്വ്യവസ്ഥയെ വളരാൻ സഹായിക്കുന്ന ഒരുപാട് പ്രാദേശിക വ്യവസായങ്ങൾ നമ്മുടെ കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട് സ്വയം തൊഴിൽ പദ്ധതി തേയില ചെപ്പെടുക്കുന്ന ഒരുപാട് ഫാക്ടറീസ് അങ്ങനെ ഒക്കെ ഒരുപാട് ജോലികൾ ഒക്കെ ഉള്ള ഫാക്ടറീസ് ഇവയിലൂടൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ സമ്പത്വ്യവസ്ഥയെ കുറച്ച് ഒരു നന്നായിട്ട് വളരാൻ സഹായിക്കാറുണ്ട് ഇനിയും കൂടുതലായ വീട്ടുമ്മമാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ചും കൂടി തൊഴിലവസരങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കില് അതിലൂടെ നമ്മുടെ സംസ്ഥാനത്തെ സമ്പത് വ്യവസ്ഥയെ കുറച്ചുകൂടി വളർത്തുവാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള ചില തൊഴിലവസരങ്ങൾ കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ സമ്പത്വ്യവസ്ഥയെ നല്ലവണ്ണം വളരാൻ സാധിക്കുകയും അതുകൂടാതെ തന്നെ ഇതിലൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉപജീവന മാർഗ്ഗം കൂടിയാണ് ഇതുപോലതന്നെ ഒരുപാട് നല്ല നല്ല ഫ്രാക്ടറീസൊക്കെ വരികയാണെങ്കില് എല്ലാവർക്കും അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും